എൻ്റെ നാട്ടിൽ

ഇരുപത് ഇരുപത്തഞ്ച് വർഷം പിറകിലേക്ക് പോയാൽ ഇഷ്ടംപോലെ മാസികകളും ആഴ്ചപതിപ്പുകളും ഒക്കെ ലഭ്യമായിരുന്നു ഇന്ന് മൊബൈലിൻ്റെയും ഒക്കെ ഒരു വലിയ സ്വാധീനത്തിലേക്കെത്തി കഴിഞ്ഞപ്പോൾ അവയുടെയൊക്കെ ഒരു പ്രാധാന്യം കുറഞ്ഞുപോയിട്ടുണ്ട് വായനയൊക്കെ ഒത്തിരി കുറഞ്ഞു പോയിട്ടുണ്ട് പക്ഷെ അന്ന് മാസികകൾ ആഴ്ചപതിപ്പുകൾ ഏറ്റവും പ്രചാരം അന്ന് മാസികകളെക്കാൾ ആഴ്ചപതിപ്പുകൾക്കായിരുന്നു ആഴ്ചപതിപ്പുകൾ എന്ന് പറയുമ്പോൾ ഈ മംഗളം മനോരമ പണ്ട് സഖി എന്നൊരു ആഴ്ചപ്പതിപ്പുണ്ടായിരുന്നു ഇതൊക്കെ ആളുകൾ വളരെ ആവേശത്തോടുകൂടി വാങ്ങുകയും വായിക്കുകയും ചെയ്തിരുന്നവയാണ് പ്രത്യേകിച്ച് നമ്മൾ പൈങ്കിളി സാഹിത്യം എന്നൊക്കെ പറയുന്ന ഒരു തരത്തിലുള്ള നോവലുകൾ മറ്റുമാണ് അതിലുണ്ടായിരുന്നതെങ്കിലും ഓരോ ആഴ്ചയും കഴിയുമ്പോൾ അടുത്ത ആഴ്ചത്തെ ആഴ്ചപ്പതിപ്പിന് വേണ്ടി ആളുകളിങ്ങനെ കാത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അയൽപ്പക്കത്തുള്ള ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ചിലപ്പോൾ പൈസ തന്ന് വിടും മംഗളം വേടിക്കാനും മനോരമ വേടിക്കാനും സഖി മേടിക്കാനും ഒക്കെ ആയിട്ട് അപ്പം ഇതൊക്കെ വേടിച്ച് പോരുന്ന വഴിക്ക് ഏറെ കുറേ ഒരു അതായത് എൻ്റെ വീട് സ്കൂളിൽ നിന്ന് ഏതാണ്ടൊരു മൂന്ന് മൂന്നര കിലോമീറ്റർ ദൂരത്തിലാണ് അപ്പം നടന്നാണ് വരിക അപ്പം ഇങ്ങനെ കൂട്ടുകൂടി ഒക്കെയാണ് കൂട്ടുകാരൊക്കെ ആയിട്ടാണ് പോയിരുന്നതെങ്കിലും ചിലപ്പോൾ വഴിക്ക് വെച്ച് തന്നെ ഈ ഇതിനകത്ത് നമ്മൾ സ്ഥിരം വായിക്കുന്ന നോവലുകളൊക്കെ വായിച്ച് തീർക്കുന്ന ഒരു രീതിയൊക്കെ അന്നുണ്ടായിരുന്നു വീട്ടിൽ വന്നാലും ഇതൊക്കെ കുറേ വായിക്കുമായിരുന്നു അങ്ങനെ ഒരു എന്താണൊരു വ്യത്യസ്തമായൊരു ഒരു ഒരു അനുഭവവും കാലഘട്ടവുമായിരുന്നു അത് ഒത്തിരി ആൾക്കാർ എനിക്ക് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും ഒരു നമ്മുടെ മലയാളികളിൽ നല്ല ശതമാനം ആൾക്കാരെയും വായന പഠിപ്പിക്കുന്നതിൽ ഈ മംഗളം വാരികയും മനോരമ വാരികയുമൊക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് സഖി എന്ന് പേരുള്ള വാരിക ഒരു കുറേ കാലം ഉണ്ടായിന്നെങ്കിലും പിന്നീട് അത് നിന്ന് പോകുന്ന സാഹചര്യമുണ്ടായി ഇപ്പം ഈ മംഗളം മനോരമയൊക്കെ ഇപ്പോഴും ഉണ്ട് പക്ഷെ അധികം ആരും വാങ്ങാറില്ല വായിക്കാറില്ല എന്നുള്ളതേ ഉള്ളു ഇതിന് ഇതിൻറ്റൊരു പോസിറ്റീവ് വശം ഞാൻ കാണുന്നത് സാധാരണക്കാരായ ആളുകൾ ഈ വായനയിലേക്ക് വന്നു എന്നുള്ളതാണ് പിന്നെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് വശം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ആളുകളിങ്ങനെ എന്താണ് അതിനകത്ത് ഒരു ശരിയല്ലാത്ത ചില ഭാഷാ പ്രയോഗങ്ങളും അത് നൽകുന്ന തെറ്റായ സന്ദേശങ്ങളൊക്കെ ആളുകുകളെ സ്വാധീനിച്ചിട്ടുണ്ടാവും അതുപോലെത്തന്നെ ഓരോ ആഴ്ചയും ഇത് കഴിഞ്ഞിട്ട് ഒരാഴ്ചത്തെ വാരിക വായിച്ചു അല്ലെങ്കിൽ വാരികയിൽ ഒരാഴ്ചത്തെ നോവല് വായിച്ചിട്ട് അടുത്ത ആഴ്ചത്തെ അതിൻ്റെ തുടർച്ചയ്ക്ക് വേണ്ടി ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ഒരു സ്ഥിതി വിശോഷം ഒക്കെ ഒരു വിധത്തിൽ മനുഷ്യൻ ഏതു സമയവും അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന അങ്ങനെയൊക്കെ ഒരു ഇത് ഇതുതന്നെയാണല്ലോ ഇന്നത്തെ സീരിയലുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേ കാര്യം തന്നെയാണ് ഇന്നത്തെ സീരിയലുകളും ചെയ്യുന്ന പക്ഷെ എന്താണെങ്കിലും ആളുകളെ വായന പഠിപ്പിച്ചു എന്നുള്ളത് ഈ ഈ മാസികകളുടെ ഒരു വലിയ പ്രത്യേകതയാണ് ഇനി മാസികകളെന്നുള്ള തലത്തിലേക്ക് ഞാനീ പറഞ്ഞത് കൂടുതലും വാരികളെക്കുറിച്ചാണ് മാസിക എന്നൊരു തലത്തിലേക്ക് വരുമ്പോൾ അന്ന് ഉണ്ടായിരുന്ന മാസത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നത് പ്രധാനമായിട്ടും ഭാഷാ ഭൂഷണിയൊക്കെയാണ് അപ്പം എന്നെ സംബന്ധിച്ച് കോളേജ് കാലത്തൊക്കെ ശരിക്കും ഭാഷാഭൂഷണി എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് ഭാഷാഭൂഷണിയിൽ വളരെ ഈടുറ്റ ലേഖനങ്ങളും കഥകളും കവിതകളുമൊക്കെ വളരെ ആനുകാലികമായിട്ടുള്ള രചനകൾ വരാറുണ്ടായിരുന്നു അതൊക്കെ വായിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ നമുക്ക് മലയാള ഭാഷയുമായിട്ടും ഒക്കെ ഒരു വലിയ അടുപ്പം ഉണ്ടാകാനായിട്ട് സാധിച്ചു എന്നുള്ളത് ഒരു സത്യമാണ് അപ്പം ഇന്നും ഈ ഭാഷാഭൂഷണി പോലുള്ളവ ഉണ്ട് എങ്കിലും അതിനൊന്നും പഴയ പോലൊരു സർക്കുലേഷനില്ലാ എന്നുള്ളത് ഒരു സത്യമാണ് പണ്ട് ഒരു ജില്ലയിൽ തന്നെ പത്തും അയ്യായിരവും പതിനായിരവുമൊക്കെ വിൽപ്പന നടന്നിരുന്ന അല്ലെങ്കിൽ അതിലധികം വിൽപ്പന നടന്നിരുന്ന ഈ മാസികകൾക്ക് ഇന്ന് ഒരുപക്ഷേ കേരളത്തിൽ മൊത്തം നോക്കിയാലും ഒരു മൂവായിരമോ നാലായിരമേ എണ്ണമേ പോകുന്നുള്ളു അത്രയേ സർക്കുലേഷനുള്ളു എന്നുള്ളതൊരു വാസ്തവമാണ് അതൊരു പരിധിവരെ നമ്മുടെ ഒരു ജീവിത രീതിയുടെയും ഒക്കെ ഒരു പ്രത്യേകത കൊണ്ടൊക്കെ ആയിരിക്കാം അതാണെങ്കിലും മാസികളിൽ ഇന്ന് നമ്മുടെ ഇടയിൽ വലിയ സ്വാധീനം ചെലത്തുന്നില്ല എന്നുള്ള ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്നു എന്നതൊരു ഒരു ഒരു വസ്തുത തന്നെയാണ്

എന്താണെങ്കിലും നമ്മുടെ ഒരു വായനയുടെ സംസ്കാരത്തെ തന്നെ മാറ്റിമറിക്കാൻ ഈ മാസികൾക്കൊരു കാല എന്നത് നമുക്കൊരിക്കലും നിഷേധിക്കാൻ പറ്റുന്ന കാര്യമല്ല ഈ മുട്ടത്തുവർക്കിയുടെ പാടുന്ന പൈങ്കിളി പോലുള്ള കൃതികളൊക്കെയാണ് മലയാളികളെ വായന പഠിപ്പിച്ചത് എന്ന് പറയാറുണ്ട് അപ്പം ആ തലത്തിൽ ചിന്തിക്കുമ്പോൾ അതിന് ശേഷം മുട്ടത്തുവർക്കിയെ പോലുള്ള ആളുകൾ മാത്തിമറ്റം ജോയ്സി അങ്ങനെയൊക്കെ ഒരു കാലഘട്ടത്തിലെ എഴുത്തുകാർ എന്ന് പറഞ്ഞാൽ എന്താ പൈങ്കിളി സാഹിത്യം മാത്രം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ പക്ഷെ അവരുടെ രചനകൾക്ക് ഈ തികച്ചും സാധാരണക്കാരായിട്ടുള്ള അധ്വാനിക്കുന്ന ജനവിഭാഗത്തെ സ്വാധീനിക്കാനും അവരുടെ ജീവിതത്തിൽ വിശ്രമ വേളകളിലൊരു ആനന്ദം പകർന്നു കൊടുക്കാനുമൊക്കെ സാധിച്ചു എന്നുള്ളതൊരിക്കലും നിഷേധിക്കാൻ കഴിയാത്ത കാര്യമാണ്